ഇപ്പോൾ അടുത്ത അടുത്തു നമ്മൾ ചൈനേനെ പിന്തള്ളി നമ്മുടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യ രാജ്യമായിട്ട് മാറിയത് ജനസംഖ്യയുടെ കൂടെ തന്നെ രാജ്യത്തു വാഹനങ്ങളുടെ എണ്ണം പെരുകയാണല്ലോ അപ്പം ഇന്നിപ്പം ഒരു വീട്ടിൽ ഒരു വാഹനമെങ്കിലും ഇല്ലാത്ത വീട് കുറവായിരിക്കും ഒന്നോ രണ്ടോ വാഹനമൊക്കെ ഉണ്ടാകും ടു വീലറാണിപ്പം നമ്മൾ ഏറ്റവും കൂടുതല് ഉണ്ടാകുക ഇതു കൊവിഡിന്റെ ടൈമിലൊക്കെ ജനങ്ങള് സുരക്ഷിത യാത്ര ചെയ്യാന് ടു വീലെറാണ് വളരെ കാറിനെക്കാളും അപേക്ഷിച്ച് ഉപയോഗിച്ചത് ഉപയോഗിച്ചിരുന്നത് അത് അതിന്റെ വില്പ്പനയില് ടു വീലര് വളരെരേയധികം വിൽപ്പന ഇതു കൂടി കഴിഞ്ഞ വർഷം ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ വാഹന വിപണിയായിരുന്നു ഇന്ത്യ മാറിയിരുന്നു കഴിഞ്ഞ വര്ഷത്തെ ഉത്സവ കാലത്ത് പല വാഹനങ്ങളുടെ നിര്മ്മാണത്തിലും റെക്കോർഡ് വില്പ്പന നേടിയത് വാഹനങ്ങളുടെ എണ്ണം കൂടുന്നെന്നു വെച്ചാൽ അടിസ്ഥാന സൗകര്യ വികസന അധികാരികള് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഹൈവേ ഗതാഗത മന്ത്രാലയം നിരവധി ലോകോത്തര ഹൈവേകൾ അടുത്തകാലത്തായി തുറന്നത് മലയാളികള്ക്ക് ഏറെ പ്രയോജനകരമായ ബംഗ്ലുരും മൈസൂര് എക്പ്രസ് വേ തുറന്നത് അടുത്ത കാലത്താണ് കേ കേരളത്തിലും ഹൈവേ നിര്മ്മാണം തകൃതിയായി മുന്നേറിക്കൊണ്ടിരിക്കയാണ് കേരളത്തിലും മള്ട്ടി ലെവല് ഹൈവേ വരുന്നതോടെ ഗതാഗതം വളരെ സുഖകരമായി മാറും നമുക്ക് വരുന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു തര്ക്കവുമില്ല എന്നാല് ഇന്ത്യൻ റോഡുകളിലെ ട്രാഫിക് ബോര്ഡുകളുടെ നിലവാരത്തെ അത്ര ഉയര്ന്നതാണോ എന്നൊരു സംശയം ചോദ്യ ചിഹ്നമായി നിൽക്കുകയാണ്